ഞാൻ ഒരു കോഴിയെ വളർത്തുന്ന ഒരാളാണ് ഞങ്ങളുടെ വീട്ടില് പലതരം കോഴികളുണ്ട് അതായത് നാടൻ കോഴികളുണ്ട് കിനി കോഴികളുണ്ട് പിന്നെ കാട കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഇറച്ചി കോഴിയായിട്ട് നമ്മള് അങ്ങനെ വളർത്തുന്നുണ്ട് കരിങ്കോഴീനെ ഒക്കെ വളർത്തുന്നുണ്ട് പിന്നെ നമ്മള് നാടൻ കോഴികളൊക്കെ ആവുമ്പഴത്തേക്കിന് നമുക്ക് നമ്മുടെ മുറ്റത്തൂടൊക്കെ ആണെങ്കില് നമ്മള് നമ്മുടെ അടുക്കള വശത്തൊക്കെ വലിച്ചെറിയുന്ന വേസ്റ്റുകളൊക്കെ ആണെങ്കില് അതുങ്ങള് കൊത്തിപ്പെറുക്കി ഓരോരോ ഇതൊക്കെ തിന്നോളും പിന്നെ നമ്മള് കൂട്ടിലിടത്തോണം ഇട്ട് വളർത്തുന്ന കോഴികളാണെങ്കില് നമ്മള് നമ്മള് സാധനങ്ങള് വാങ്ങിച്ചു കൊടുക്കണം അതുങ്ങൾക്ക് കോഴിത്തീറ്റയൊക്കെ വാങ്ങിച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ നാടൻ കോഴിയുടെ മുട്ടയ്ക്കൊക്കെയാണ് ഗുണങ്ങള് ഉള്ളത് നമ്മള് നമ്മള് തീറ്റി മേടിച്ചു കൊടുക്കുന്ന കോഴികളുടെ മുട്ടക്കത്രയും ഗുണം പോരാ എന്നാലും നാടൻ കോഴിയുടെ മുട്ട ആവുമ്പോഴത്തേക്കിനും അതിനൊത്തിരി വിറ്റാമിൻസും കാൽസ്യങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് നാടൻ കോഴികളുടെ മുട്ടയ്ക്കാണ് ഗുണം കൂടുതലും അതിനാണ് ചെലവ് കൂടുതലും പിന്നെ നമ്മള് പിന്നെ ഇറച്ചി കോഴികളായിട്ട് കുറച്ചു കോഴികളെ വളർത്തുന്നുണ്ട് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കില് നമ്മള് കൊടുക്കും ആ ഇറച്ചി കോഴികളെ ചോദിച്ചു വരുമ്പോഴത്തേക്കിന് നമ്മള് കൊടുക്കാറുണ്ട് പിന്നെ കരിങ്കോഴികളുടെ മുട്ടയ്ക്കും ഗുണങ്ങളുണ്ട് പക്ഷേ അതിനു മുട്ടയ്ക്ക് വില കൂടുതലാണ് ആ മുട്ടയ്ക്ക് കരിങ്കോഴികളുടെ മുട്ടയ്ക്ക് വിലക്കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ അധികം ചെലവുകളില്ല എന്നാലും ആരെങ്കിലൊക്കെ വരുമ്പോഴേക്കിന് അതിൽ നിന്ന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഗിനി കോഴികളൊക്കെ ആണെങ്കിലും സാധാരണ ആൾക്കാര് വന്ന് വീടുകളിൽ വളർത്താൻ വേണ്ടി അവരുടെ വീടുകൾക്കൊക്കെയൊരു എന്താണ് കിളികളൊക്കെ വളർത്തുന്നവരൊക്കെ ഉണ്ടെങ്കില് അതിനൊക്കെയുള്ള വളർത്താൻ വേണ്ടി ഒക്കെ ഓരോരുത്തരൊക്കെ വന്ന് വാങ്ങിച്ചോണ്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഈ കൾക്കം പൊണക്കത്തെ രണ്ടു കോഴികളുണ്ട് അതുങ്ങള് വന്ന് ഇങ്ങനെ മുറ്റത്തൊക്കെ വന്നു ഇങ്ങനെ വന്ന് സ്വരങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഒരു രസമാണ് അങ്ങനെയുള്ളത് വളർത്തുന്നതൊക്കെ അങ്ങനെ അതിനായിട്ട് വളർത്തുന്നുണ്ട് പിന്നെ കോഴികളെ നമ്മള് കൂടുതലായിട്ട് വളർത്തുന്ന നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കില് നാടൻ കോഴികളുടെ മുട്ട കൊടുക്കുന്നത് നല്ലതല്ലേ അപ്പോള് അതുകൊണ്ട് അങ്ങനെ വളർത്തും പിന്നെ ആൾക്കാർക്കൊക്കെ വന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അവർക്കും പത്തും പതിനഞ്ചോ ഒക്കെ വച്ച് കൊടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്ലോക്ക് കോഴികളുടെ മുട്ടകളെ കാട്ടിലും ഇച്ചിരീം കൂടൊക്കെ വില ഉള്ളത് നമ്മുടെ നാടൻ കോഴിയുടെ മുട്ടക്കാണ് ഗുണവും വിലയും വരുന്നത് നാടൻ കോഴിക്കു തന്നെയാണ് പിന്നെ